ഹലോ ആ അതെ എനിക്ക് കുറച്ച് ഫുഡ് വേണമായിരുന്നെ അവിടെയുള്ള കുറച്ച് ഫുഡ് വേണെയെനിക്ക് ഓഡറെയ്യണായിരുന്നെ മൂപ്പൻസ് റസ്റ്റോറൻറ്റല്ലേ ആ ഞാനേ എനിക്ക് രണ്ട് ചിക്കൻ ബിരിയാണി വേണമായിരുന്നു പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും വേണമായിരുന്നെ ക്യാഷോൺ ഡെലിവറിയാണോ ക്യാ ക്യാഷെൻറ്റേയിലില്ലാട്ടോ ഗൂഗിൾ പേ ചെയ്യാനേ ഉള്ളു മറ്റേ ക്യാഷില്ല കയ്യിൽ ക്യാഷില്ലാ അതുകൊണ്ടാണ് ഗു നിങ്ങള്ക്ക് ഗൂഗിൾ പേയില്ലേ ഗൂഗിൾ പേ അല്ലെങ്കില് ക്യാ ഇത് ചെയ്യാന് പറ്റത്തില്ലേ എനിക്ക് ട്രാൻസ്ഫറെയ്യാൻ പറ്റുമോ പൈസ നിങ്ങളുടെ അക്കൗണ്ട് ഇത് തന്നാല് മതി അത് വെച്ച് ഞാന് ട്രാൻസ്ഫറെയ്യാന് പറ്റും എനിക്ക് ഗൂഗിൾ പേ ചെയ്യാന് പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങള്ക്ക് ക്യാഷ് തന്നെ വേണോ നിർബന്ധമാണോ ആ ക്യാഷന്നെ വേണമെന്നുണ്ടെങ്കില് ഞാന് പിന്നെ അത് പിന്നെ ഓർഡർ പിന്നെ ക്യാൻസലെയ്യാ അല്ലാതെനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല എൻ്റെ കയ്യിൽ കാശില്ലാ എൻ്റെ അല്ല എൻ്റെ ഇവിടെ ഞാനിപ്പോള് ഇതീന്നടുത്ത് എൻ്റെ ക ഇവിടെ ആരുമില്ല വേറെ ആരുമില്ല ഒന്ന് ചോദിക്കാനാണേലും വേറെ ആരുടെയും കയ്യിലില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ കുഴപ്പമില്ല ഞങ്ങൾ പിന്നെ അത് വേറെ ആരുടെ കയ്യിലും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ആ ശരി എന്നാല് ഓക്കെ